ഇന്ന് കാർഷികമേഖലയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വായ്പകളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും വളരെ കൂടുതലാണ് ഇന്ന് നമ്മൾക്ക് കാർഷികമേഖലയുടെ പുരോഗമനത്തിന് വേണ്ടീട്ട് ബാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് വായ്പയായിട്ട് നാല് ശതമാനം മാത്രം പലിശയിൽ നമ്മൾക്ക് ലോൺ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട് തരിശുനില കൃഷി അതുപോലെ തന്നെ തരിച്ച് കിടക്കുന്ന കൃഷി സ്ഥലത്ത് നെല്ല് ഉൽപാദനത്തിന് വേണ്ടിയുള്ള സഹായങ്ങള് പുതിയ പുതിയ മെഷിനറി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ അങ്ങനെ പല വായ്പകളും ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കർഷകർക്ക് ലഭിക്കുന്നുണ്ട്